ഹലോ ക്യാബ് ഏജൻസി അല്ലേ എനിക്കൊരു ആ അർജെൻറ്റായിട്ട് എനിക്ക് ഇപ്പം കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോകാൻ ഒരു ക്യാബ് വേണായിരുന്നേ ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് ആ അതെ അതെ അപ്പം ഞങ്ങള് ഒരു നമ്മളൊരു ഏഴ് പേരുണ്ട് രണ്ട് കുട്ടികളും ബാക്കി അഞ്ച് പേര് വലിയവരാണ് അപ്പം അവർക്കിരിക്കാൻ അത്യാവശ്യം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇരിക്കാനുള്ള ഒരു സെവെൻ സീറ്റർ വണ്ടി വേണം അതെ അതെ അതെ അപ്പം നമുക്ക് എപ്പഴാന്ന് വെച്ചിട്ടുണ്ടെങ്കില് നാളെ വൈകുന്നേരത്തേക്കാണ് നമ്മള് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം വൈകുന്നേരം ഒരു ആറ് മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒന്ന് ഞാൻ ലൊക്കേഷൻ ഇടാം അപ്പോൾ നമ്മുടെ ഇവിടേക്ക് വന്നാൽ മതി ആ ആ അപ്പം നമ്മള് ആദ്യമായി ആദ്യമേ അഡ് അഡ്വാൻസ് തരണോ എങ്ങനെയാണ് ആ അങ്ങനെ ആണെങ്കിൽ ഞാൻ അഡ്വാൻസ് പേ ചെയ്യാം ബാക്കി നമ്മള് അവിടെ എത്തിയിട്ടുണ്ടെങ്കി ബാക്കി ഞാന് അങ്ങനെ അയയ്ക്കാം കെട്ടോ ഓക്കെ താങ്ക്യൂ